നമ്മുടെ അതായത് പ്രാദേശിക ഭാഷയിൽ രേഖകൾ വരണം ഇപ്പം നമ്മളിപ്പോൾ ബാങ്കിലൊക്കെ പോയിട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചൊറയാണ് ഇപ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണെ തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചു വയസ്സായവർ അതായത് ഇംഗ്ലീഷ് കാര്യങ്ങൾ ഒന്നും അറിയാത്തവർ ഇപ്പോൾ പോയിയെന്ന് വെച്ചോ ഇപ്പോൾ നമ്മൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതായത് നമ്മൾ കുറേ പൂരിപ്പിക്കണം പിന്നെ നമ്മൾ പറയണം അങ്ങോട്ട് പിൻവലിക്കണേ നമ്മളിപ്പോൾ അതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും ഇംഗ്ലീഷിലാകുമ്പോൾ എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ വയസ്സായവരൊക്കെയാണെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പൊക്കെ തേടണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതു കൊണ്ടു തന്നെ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണമെന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരോടൊക്കെ ചോദിക്കണമല്ലോ എന്തെങ്കിലും എഴുതിതരുമോ അപ്പോൾ നമുക്ക് നമ്മുടെ മലയാള ഭാഷയിലും കൂടി അതൊന്ന് ഇപ്പം അങ്ങനെയൊരു ഇതിറങ്ങിയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഉപകാരമായിരിക്കും എല്ലാവർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അവർക്ക് അവരുടേതായ ഇഷ്ടത്തിൽ പിന്നെ എഴുതാനും എല്ലാം പറ്റും ആരോടും ചോദിക്കണ്ട മലയാളമറിയാത്തവർ വ വളരെ കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ടു തന്നെ നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു ഉപകാരമായിരിക്കും